എനിക്കറിയാകുന്ന ട്രാക്റ്ററുകള് ഞാനീ മേഘലയില് വളരെ വ് അറിവ് കുറവായതു കൊണ്ടു തന്നെ എനിക്കറിയാവുന്ന ട്രാക്റ്റർ കമ്പനി വേണമെങ്കിൽ ഭാരത് ഇന്ഡ്യ ലിമിറ്റഡ് കമ്പനിയുടെ ട്രാക്റ്റര്സ് കണ്ടിട്ടുണ്ട് അതേ പോലെ തന്നെ ഹിറ്റാച്ചി എന്നു പറയുന്ന ഒരു മോഡലിന്റെ ട്രാക്ക്റ്റർ കണ്ടിട്ടുണ്ട് അതു കുഞ്ഞാണ് അപ്പം നമുക്ക് പെട്ടെന്ന് പല സ്ഥലങ്ങളിലേക്കും അതു കൊണ്ടു പോയി ചെറിയ ചെറിയ പ്രദേശങ്ങളാണെങ്കിലും മണ്ണു മാന്താനും അങ്ങനത്തെ ചെ കാര്യങ്ങളൊക്കെ ചെയ്യാന് വേണ്ടിയിട്ട് ഇപ്പം കൂടുതൽ ആള്ക്കാര് എനിക്കു തോന്നുന്നു അതിനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അതിനെയാണ് കൂടുതല് ഇതാക്കുന്നത് ഇപ്പോൾ കുറേ ആള്ക്കാരതു മേടിച്ചിപ്പം വാടകക്ക് കൊടുക്കുന്ന രീതിയൊക്കെ കാണാന് സാധിക്കുന്നുണ്ട് പിന്നെ പരമ്പരാഗത രീതികളില് നിന്നു വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നു എന്നു പറഞ്ഞാല് പണ്ടത്തെ ട്രാക്ക്റ്ററുകള് നമുക്കറിയാമല്ലോ ഒത്തിരി ഇതൊന്നും അതിൽ കുറേ ഇതൊന്നും ചെയ്യാന് പറ്റാത്ത കുറേ ട്രാക്റ്ററുകളായിരുന്നല്ലോ പക്ഷെ ഇപ്പോൾ കൂടുതലും മണ്ണിനെ നമുക്കു വേണ്ട രീതിയിൽ മണ്ണു മാന്താന് പറ്റുന്ന രീതിയിലുള്ള ട്രാക്റ്ററുകളും മണ്ണു നിരത്താന് പറ്റുന്ന രീതിയിലുള്ള ട്രാക്റ്ററുകളും വേസ്റ്റ് കോരുന്ന രീതിയിലുള്ളതും പുല്ലു പറിക്കാന് പറ്റുന്നതും അങ്ങനത്തെ കുറേ കുറേ കാര്യങ്ങളൊക്കെ പുതിയതായിട്ടു വന്നതായിട്ട് എന്റെ ഒരറിവിലുണ്ട് പിന്നെ ഇതൊക്കെ ശരിയാണോ ഒന്നും എനിക്കറിയത്തില്ല എന്റെ ഒരു മി ഒരു ചെറിയ അറിവിൽ ഞാനിതൊക്കെ പറയുന്നതാണ് പിന്നെ പറയാനാണെങ്കിൽ തരം എന്നു പറയാമെങ്കിൽ വലിയ ട്രാക്റ്ററുണ്ട് ചെറിയ ട്രാക്റ്ററുണ്ട് ഈ ചെറിയ ട്രാക്റ്ററിലാണ് ഹിറ്റാച്ചി ഒക്കെ വരുന്നത് പിന്നെ ഇവന് പറയുകയാണെങ്കിൽ എന്റെ അച്ഛന്റെ ഫ്രണ്ടിനൊക്കെ ഇതുണ്ട് അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ടു കുറച്ചു കണ്ടിട്ടൊക്കെ ഉണ്ട് അതിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ചെറിയൊരു ധാരണ ഉണ്ട് എന്നാലും കുഴപ്പമില്ല പിന്നെ പറയാനാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ നമ്മളൊരു കര്ഷകന് എന്തു മാത്രം ബുദ്ധിമുട്ടാണ് അവ ഇപ്പോൾ സാമ്പത്തികമായി പിന്നോട്ടു നിൽക്കുന്നവര്ക്ക് എന്താ മണ്ണ് മാന്തലിന്റെ വേറെ ട്രാക്റ്റർ കൊണ്ടു വരുന്നതൊക്കെ ഭയങ്കര പാടാണ് അതു കൊണ്ടു തന്നെ ഇപ്പം കൃഷി ഭവനിൽ നിന്നൊക്കെ അങ്ങനെ ട്രാക്റ്റര് സൗകര്യങ്ങളും വേറെ ഉ ഉത്പന്നങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടതായിട്ട് അറിയാന് സാധിച്ചിട്ടുണ്ട്